വരയ്ക്കണം എന്ന് തോന്നിയാൽ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വന്നാൽ ആദ്യം മനസ്സിൽ കടന്നുവരുന്നത് നാച്ചുറൽ പ്രകൃതി ഭംഗിയുള്ള സീനുകൾ അല്ലെങ്കിൽ രംഗങ്ങളാണ് അതാണ് മനസ്സിൽ വരുന്നത് അത് പൊതുവേ സഞ്ചാരപ്രിയനായ എനിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നല്ല പുഴകളോ നദികളോ വെള്ളച്ചാട്ടങ്ങളോ ഒക്കെ കാണുമ്പോൾ അതായിരിക്കും മനസ്സിൽ വരുന്നത് അത് മനസ്സിൽ തെളിഞ്ഞാൽ ഉടൻ അതിൻ്റെ സ്കെച്ചായിരിക്കും പെൻസില് വെച്ച് ആദ്യം വരച്ച് അത് രൂപപ്പെടുത്തി അതായിരിക്കും കംപ്ലീറ്റ് തീരുമാനിച്ച് അതായിരിക്കും ആദ്യം ചെയ്യുന്നത് ഇതിൽ ഇത് ചെയ്യുന്നത് എനിക്ക് സോ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അതൊരു പ്രത്യേക ഉണർവും സന്തോഷവും പ്രകൃതിഭംഗി ആസ്വദിക്കുന്ന എനിക്ക് അതൊരു സന്തോഷം നൽകുന്നതാണ്